ഞാൻ നടത്തിയ ഏറ്റവും സവിശേഷമായ ഒരു മലകയറ്റമാണ് ക്ലൈമ്പിങ് ആണ് കൊല്ലംകോടൊക്കെ ഭാഗത്തുള്ളത് കേരളത്തിൻ്റെ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് ഭാഗത്തുള്ളത് അത് പാട പാടമാണു നല്ല വിശാലമായ പച്ച പരവതാനി വിരിച്ച പോലുള്ള ഒരു പാടമാണ് അത് അവിടെ ഫുൾ നമ്മൾക്ക് കണ്ടാൽ കണ്ണിന് കുളിരണിയിക്കുന്ന ഒരു കാഴ്ചയാണത് ഫുൾ പച്ച പരവതാനി ഇങ്ങനെ വിരിച്ച് കിടക്കുന്ന ഒരു പാടം താഴെ നിന്ന് നോക്കുമ്പോൾ ഒന്ന് അതിൽ ഇങ്ങനെ ഈ തെങ്ങ് കുലച്ച് നിൽക്കുന്ന തെങ്ങുകൾ അതേപോലെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ തൊക്ക് അതിന് നടുവിലൂടെ നടന്ന് മല കയറി മുകളിലെത്തി ക്ലൈമ്പ് ചെയ്ത് ആ ലൊക്കേഷനിലെത്തി താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച്ച വളരെ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കണ്ണിന് ഭംഗിയായുള്ള ഒരു കാഴ്ച്ചയാണത് താഴത്തിങ്ങനെ നോക്കിയാൽ ഒന്നും കാണില്ല ഫുള്ള് പച്ചപ്പാണ് പച്ചപ്പങ്ങനെ അങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ് പച്ചപ്പ് പച്ചപ്പ് അതേപോലെ കുളങ്ങള് പാടശേഖരങ്ങള് മരങ്ങള് നമുക്ക് അത്രയും അവിടെ കയറി നിൽക്കുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ അത് ഫീല് ചെയ്യാൻ പറ്റും നാളെ വളരെ റിലാക്സായിട്ട് നല്ല ശുദ്ധമായ പൊല്യൂഷനൊന്നും ഇല്ലാത്ത നല്ല ഓക്സിജൻ നമുക്ക് ശ്വസിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രത്യേക ഫീല് നമുക്ക് കിട്ടും